മലയാള ഭാഷ എൻ്റെ സംസ്കാരത്തെയും വ്യക്തിത്വമേഘലയെല്ലാം സ്വാധീനിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ മലയാളം നമ്മുടെ മാതൃഭാഷയാണ് അതുകൊണ്ട് തന്നെ മലയാളത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇപ്പം മലയാളത്തെക്കുറിച്ച് സംസാരിക്കുകയാണേ മലയാളം എന്നത് നമ്മുടെ രാജ്യത്തെ ഇരുപത്തിരണ്ട് അംഗീകരിച്ച ഭാഷകളിലൊരു പ്രധാനപ്പെട്ട ഭാഷയാണ് മലയാളം സോ മലയാളം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളം പഠിക്കുന്നതിലൂടെ എനിക്ക് മലയാള ചരിത്രത്തെക്കുറിച്ചും അതായത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തേക്കുറിച്ചും ഒക്കെ എനിക്ക് പഠിക്കാൻ അറിവ് നേടിയിട്ടുണ്ട് അത് നമ്മുടെ മറ്റ് ഹിസ്റ്ററികൾളൊന്നും പഠിക്കുന്നില്ല അതിപ്പം മലയാളം പഠിക്കുന്ന ഒരു കുട്ടിയെന്ന നിലയിലെനിക്ക് ഒത്തിരി കാര്യങ്ങളെനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തേക്കുറിച്ചും നമ്മുടെ പൂർവ്വികരെക്കുറിച്ചും നമ്മൾ എങ്ങനെയാണ് മലയാളം എങ്ങനെയാണ് ഉണ്ടായത് കേരളം എങ്ങനെയാ ഉണ്ടായത് എന്ന് എല്ലാം മലയാളം പഠിക്കുന്നത് കൊണ്ടെനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ മലയാളത്തനിമ മലയാളത്തിലെ നമുക്ക് മലയാളത്തിൽക്കൂടെ വ്യക്തിപരമായി മലയാളം ഒത്തിരി മാറ്റങ്ങൾ നമ്മളെ സഹായിച്ചിട്ടൊണ്ട് അതായത് മലയാളികൾ ഫോളോ ചെയ്തു വന്നിരുന്ന വ്യക്തിപരമായ കാര്യങ്ങളുമെന്നിൽ പകർന്നെത്തിയിട്ടുണ്ട് അപ്പം അതെല്ലാമെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം മലയാളമെന്ന് പറയുന്നത് എൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അതുപോലെത്തന്നെ മലയാളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും ഇപ്പം മലയാളികളെത്തിച്ചേർന്നു അവിടെ പല യൂണിവേഴ്സിറ്റികളിലും മലയാളമിപ്പം ഒരു പഠനവിഷയമായി എത്തിച്ചേരുന്നുണ്ട് സംസ്കാരമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങളിൽനിന്ന് നമ്മുടെയൊരു സംസ്കാരം വേറിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മലയാളമെന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ ആവശ്യമാണ്